അതെ അതെ അതെ അതെ ആ എന്തായിരുന്നു ആ ആ ആ ഇത് എന്നാണത് ഉവ്വ് ഉവ്വ് ആ എന്താണു ചെയ്യേണ്ടതു നമ്മള് ഉണ്ട് ഉണ്ട് ഉണ്ട് ആ എന്താണ് നിങ്ങള് എന്താണു രാവിലത്തേന് എന്താണ് ഉദ്ദേശിക്കുന്നത് മ്മ് മ്മ് മ്മ് ഏത് വേണമെങ്കിലുമുണ്ട് അതല്ലെങ്കില് പിന്നേ ആ ചെയ്യാം ചെയ്യാം അതായത് എത്ര ഏകദേശം എത്ര പേരുണ്ടാവും ഒരൂ പേർക്കുള്ള ഭക്ഷണം രാവിലെ വേണം ഉച്ചയ്ക്ക്

അതല്ല പിന്നെ ബിരിയാണി ഐറ്റംസ് വല്ലതും ആ എല്ലാമുണ്ട് ഐസ്ക്രീമുണ്ട് കൂൾ ഡ്രിങ്ക്സ് എന്തു വേണമെങ്കിലുമുണ്ട് അല്ല അങ്ങന ഉണ്ടെങ്കില് റൈസും ചിക്കനും സെപ്പറേറ്റ് തരാം

ആ ആ റേറ്റെന്നു പറഞ്ഞാലേ അത് ഇപ്പോള് രാവിലെ നൂറു പേർക്കല്ലേ അപ്പോൾ അപ്പം ഒരു ചിക്കൻ ചിക്കനും ഒരു ആൾക്ക് ആ ഒരാൾക്കൊരൂ ആ ആ ആൾക്കൊരൂ പെർ ഹെഡൊരു അമ്പത് രൂപ വച്ച് ആവും മ്മ് രാവിലത്തെ രാവിലത്തെ എല്ലാം വേണം അല്ലേ ഉച്ചയ്ക്കത്തേതും കൂടെ കൂട്ടി മ്മ് മ്മ് മ്മ് മ്മ് അല്ല അല്ല അത് ആ മ്മ് ഉണ്ട് ഫ്രൈ വേണമെങ്കില് ഫ്രൈ തരാം അതല്ല കറി വേണമെങ്കില് കറി തരാം ആ എന്തു വേണമെങ്കിലും എടുക്കാം നിങ്ങളിപ്പോള് എന്താണ് നിങ്ങള് വേണ്ടതെന്നുവച്ചാല് ഇങ്ങു വന്നിട്ടേ നാൽപത് കെ ജി നമ്മളതേ ഒരൂ ഒരു പ്ലേറ്റിനൊരു ഉച്ചയ്ക്കത്തേത് ആണെങ്കിലൊരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് രൂപയോളമാവും ആ എന്നാല് അങ്ങനെ ആണേല് ബിജുവേ നാളെത്തന്നെ കടയിലോട്ടൊന്നിറങ്ങുമോ ഇറങ്ങിയിട്ട് നമുക്കൊരു തമ്മില് കണ്ട് സംസാരിച്ചിട്ട് നമ്മുക്കൊരു ചെറിയ അഡ്വാൻസ് വല്ലതും ഏ അഡ്വാൻസ് അതു തരാം ആ ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഓക്കെ ഓക്കെ